ഇരുപത്തി എട്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി രണ്ട് പതിനൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് ഒൻപത് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇരുപത്തി രണ്ട് പതിനൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി ഏഴുപത്തി ഒൻപത്